ഇന്ത്യയിൽ ഗതാഗതം നിലവിൽ വലിയ കുഴപ്പമില്ലാതെയാണ് പോകുന്നത് എന്നാലും സർക്കാർ ചില എന്താണ് അവർ തിരിഞ്ഞ് നോക്കാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ റോഡിൻ്റെ പരിമിതികളും റോഡുകൾ പലതും പൊളിഞ്ഞും അങ്ങനൊക്കെ ഒരുപാട് വണ്ടികൾ അപകടപ്പെടുകയും ഒക്കെ ഉണ്ട് മറ്റ് കൺട്രീസിനെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇന്ത്യയിലെ ഗതാഗതം കുറച്ച് മോശമാണ് കാരണം അവിടെയൊക്കെയാണെങ്കിൽ എന്താണ് ഒരു ഇപ്പോൾ ഒരൂ വണ്ടി ഓടിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരൂ എൺ എൺപത് കിലോ മീറ്ററിലാണ് വണ്ടി ഓടിക്കുന്നെങ്കിൽ പുറകിൽ വരുന്ന വണ്ടിയും സെയിം സ്പീഡിലായിരിക്കും ഫ്രണ്ടിൽ പോകുന്ന കാറ് എൺപത് കിലോ മീറ്ററാണേ പുറകിൽ വരുന്ന കാറായാലും ബൈക്കായാലും ബസ്സായാലും ഏതായാലും കറക്റ്റ് സ്പീഡിൽ അതൊക്കെ ഇപ്പോൾ കാറിൻ്റെ പോകുന്ന സ്പീഡ് എൺപത് കിലോ മീറ്ററാണ് ആ സമയത്ത് ബൈക്കിന് പോകേണ്ട സ്പീഡ് എത്രയാണെന്ന് അവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടാകും ഈ മറ്റു പല കൺട്രീസിലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഗതാഗതം കുറച്ച് മോശമാണ് എന്നാലും കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് പിന്നെ റോഡിൻ്റെ ഇതും പിന്നെ ആൾക്കാരുടെ സ്പീഡും കൊണ്ടൊക്കെയാണ് കൂടുതലും റോഡുകളിൽ പരിക്കും ഒക്കെ വരുന്നത് ആ പിന്നെ പ്രധാനമായും നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ അശ്രദ്ധ കുറവ് അതുകൊണ്ട് അശ്രദ്ധ കുറവുകൾ കൊണ്ട് നമുക്ക് മെയിനായിട്ട് ഒരുപാട് ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ടു വീലേഴ്സ് എസ്പെഷ്യലി ബൈക്ക് ഇപ്പോഴത്തെ ന്യൂ ജെൻ ചെക്കന്മാർ ബൈക്കിൽ പോകുന്നത് ഒരു ലൈസൻസുമില്ലാതെയാണ് എല്ലാവരും ബൈക്കിൽ പോണേ ഹെൽമറ്റ് വെക്കുന്നുണ്ട് എന്തിനെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് മാത്രമറിയാം അങ്ങനത്തെ ഒരു രീതിയിലാണ് ഹെൽമറ്റ് അവർ യൂസ് ചെയ്യുന്നത് പിന്നെ ഒരു സ്പീഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ച് തുറക്കും മുൻപേ അവർ എത്തേണ്ട സ്ഥലത്ത് എത്തും അങ്ങനെ പോയി ഒരുപാട് ഒരുപാട് പേര് ആക്സിഡന്റാവുകയും തലച്ചോറൊക്കെ പൊട്ടിത്തെറിച്ച് പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ പല വളവുകളിലും കീയടിക്കാൻ മറന്ന് പോകുന്നത് മൂലവും തുടങ്ങിയ ഒക്കെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് പിന്നെ ബസ്സ് ഓടിക്കുന്നത് ഈ രണ്ട് ബസ്സുകൾ ഇടക്ക് ഈ ഇടക്ക് ഒരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ബെസ്സിൻ്റെ ഇടക്ക് ഒരു സ്കൂട്ടി വന്ന് സ്കൂട്ടി പോകുന്നുണ്ടായിരുന്നു ആ ഫസ്റ്റത്തെ ബസ്സ് ബ്രേക്ക് പിടിച്ചു സ്കൂട്ടിക്കാരനും ബ്രേക്ക് പിടിച്ചു പുറകിലത്തെ ബസ്സ് ബ്രേക്ക് പിടികുമ്പോഴത്തേക്ക് സ്കൂട്ടിക്കാരനെ ത ഈ തട്ടി ഇടിച്ച് അവിടെ ബാ ഹസ്ബന്റ്റ് ആൻഡ് വൈഫായിരുന്നു അപ്പം ഈ ഹസ്ബന്റും വൈഫും രണ്ട് പേരും സ്പോട്ടിൽ മരിച്ചു രണ്ട് മക്കളാണുള്ളത് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒന്നാമത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂട്ടി ഫ്രണ്ടിൽ പോണു ഇടുങ്ങി ഇടുങ്ങിയാണ് പോകുന്നത് അപ്പം നമുക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ ഇടുങ്ങി ഇടുങ്ങി പോകുമ്പം നമുക്ക് എന്തോരം പേർ പോകുന്നുണ്ട് ഒന്നാമത് ബസ്സ് നല്ല പൊക്കമുള്ള ബസ്സാണ് അപ്പോൾ നമുക്ക് ഡ്രൈവറെയും പറയാൻ പറ്റില്ല ഡ്രൈവർക്ക് കാണാൻ പറ്റത്തില്ല നടുക്കിൽക്കൂടി സ്കൂട്ടി പോകുന്നത് ആ ഒരു ബസ്സുകാരൻ ഒരൂ എന്താ ബൈക്ക്കാരനുണ്ടായിരുന്നു ആൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് അങ്ങനെ ഒരുപാട് ആക്സിഡന്റ് നടക്കുന്നുണ്ട് നമ്മുടെ അശ്രദ്ധാ മൂലം മൂലം പിന്നെ ഈ സീബ്ര ലൈൻസ് നമ്മൾ റോഡുകളിലുള്ള സീബ്രാ ലൈൻസുണ്ടെങ്കിൽ ഈ പിള്ളേർ ഈ പ്രായമായവർക്കൊക്കെ പോകാൻ വേണ്ടി ഉള്ളതാണ് അത് സ് പല ആൾക്കാരും നമ്മളീ സീബ്രാ ലൈനിൽക്കൂടി ക്രോസ് ചെയ്യുമ്പോ ആൾക്കാരെന്തു ചെയ്യില്ലാ ബസ് വണ്ടി ഓടിക്കുന്നവർ അത് ശ്രദ്ധിക്കാതെ അങ്ങനെ സീബ്രാ ലൈൻ ക്രോസ് ചെയ്യുന്ന ഇടക്ക് പോലും പലർക്കും പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്